ഞങ്ങളുടെ പ്രദേശം ഒരു ഗ്രാമപ്രദേശം ആണ് അവിടെ കൂടുതലും മലയാളം ദിനപത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് ദീപിക മംഗളം മാതൃഭൂമി മലയാള മനോരമ എന്നുള്ള ദിനപ്പത്രങ്ങൾ തന്നെയാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് മറ്റ് ഭാഷയിലുള്ളതെന്ന് പറയാൻ ഇൻഡിയൻ എക്സ്പ്രസ്സ് ഉള്ള ഇംഗ്ലീഷ് പത്രം മാത്രമേ കൂടുതലും പേർ ഉപയോഗിച്ച് അല്ലാതെ ഉള്ളവർ ഉപയോഗിച്ച് കാണുന്നുള്ളൂ അല്ലാതെ വേറെ ഭാഷകളൊന്നും അങ്ങനെ അധികം ഉപയോഗിച്ച് ആരും കാണുന്നില്ല കൂടുതൽ പേരും മലയാളം പത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മലയാള മനോരമ ദീപിക പോലുള്ള പത്രങ്ങൾ തന്നെയാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഏറ്റവും സഹായകരമായത് മലയാള ദിനപ്പത്രം തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രെസ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ചുപേർ ഉദ്യോഗസ്ഥരോ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തേച്ച് വന്നവരോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അത് ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കം പേരെ ഉള്ളൂ ഏറ്റവും കൂടുതലാളുകൾ ഉപയോഗിക്കുന്നത് മലയാള ദിനപ്പത്രം തന്നെയാണ് വാർത്തകൾ അറിയാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും വായനാശീലം വളരെ കുറവാണ് മറ്റ് പല നേരത്തെയൊക്കെ ഒരു നൈൻറ്റീസ് കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും ഇംഗ്ലീഷ് പത്രവും മലയാളപ്പത്രവും ഒക്കെ വായിച്ച് സ്കൂളിൽ പോകുന്നവർ പോകാറുള്ളൂ അല്ലെങ്കിൽ മുതിർന്നവരായാലും ലൈബ്രറികളിലും ഒക്കെ പോയി പത്രം ഒക്കെ എടുത്ത് പലപത്രങ്ങളൊക്കെ എടുത്ത് അന്നൊക്കെ കൂടുതലും ലൈബ്രറികളിലൊക്കെ പത്രങ്ങളൊക്കെ പല ഭാഷകളിലുള്ള പത്രങ്ങളൊക്കെ വരുത്തി ഇടുകയായിരുന്നു അത് എല്ലാവർക്കും വായിക്കാൻ കാരണം പല ഭാഷാ പരിജ്ഞാനമുള്ളവർക്ക് അത് വായിക്കാൻ സഹായകരമായിരുന്നു അങ്ങനെ എല്ലാം ചുരുക്കം കുറച്ച് ആൾക്കാർ ലൈബ്രറികളിലൊക്കെ പോയി ഇരുന്ന് പത്രം വായിക്കാറുണ്ട് പല പത്രങ്ങൾ വായിച്ച് അറിവ് നേടാറുണ്ടായിരുന്നു ഇന്നത്തെ പക്ഷെ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പൊതുവെ വായനാശീലം വളരെ കുറവാണ് മൊബൈൽ പോലുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ മൊബൈൽൻ്റെയൊക്കെ ഉപയോഗം വളരെ കൂടുതൽ ആയതുകൊണ്ട് വായനാശീലം വളരെ കുറവാണ് എല്ലാവർക്കും അത് തിരികെ കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം അതിന് ഏറ്റവും ആദ്യം നമ്മൾ ശീലിക്കേണ്ടത് ദിവസവും നമ്മൾ നമ്മുടെ ദിനപ്പത്രങ്ങൾ വായിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊരു ചെറിയ രീതിയിൽ വായനാശീലം വീണ്ടും തുടങ്ങിവയ്ക്കുക നമ്മുടെ കുട്ടികൾക്ക് അതൊരു ശീലമാക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികളിൽനിന്നും വായനാശീലം തീരെ മാറിപ്പോകും അവരൊക്കെ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആയി തന്നെ അവർ വളരും അത് ആരോഗ്യപരമായും മാനസികമായ വികാസം ബുദ്ധി വികാസത്തിനും ഒക്കെ അത് ഒരുപാട് ദോഷം ചെയ്യും അതിനൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ നമ്മൾ വായനാശീലം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിന് അവരെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് തന്നെ കുട്ടികളെ പത്രം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കണം പലഭാഷ അതായത് ഒന്നും ഇല്ലെങ്കിൽ ഒരു മലയാളം പത്രവും ഒരു ഇംഗ്ലീഷ് പത്രവും വായിക്കാൻ അവരെ ശീലിപ്പിക്കണം അത് ഇപ്പം വീടുകളിൽ ഒരുപാട് പത്രങ്ങൾ വരുത്താൻ സാഹചര്യമില്ലാത്തവർക്ക് നമ്മൾക്ക് സ്കൂളുകളിൽ അതിനുള്ള ക്രമീകരണം ചെയ്തുകൊടുക്കണം അറ്റ് ലീസ്റ്റ് ഒരു ഇന്ത്യൻ എക്സ്പ്രെസ്സ് പോലുള്ള ഒരു ഇംഗ്ലീഷ് പത്രം എങ്കിലും അവിടെ വരുത്തിയിട്ട് കുട്ടികൾ അത് ഓരോ ക്ലാസ്സ് ബെയിസിലോ വല്ലതും അത് എനിടൈം അറയ്ഞ്ച് ചെയ്തുകൊടുത്ത് കുട്ടികൾക്കത് വായിക്കാനുള്ള ഒരു അവസരം സ്കൂളുകാർ ചെയ്തുകൊടുക്കണം കാരണം അത് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് അതിലൂടെ കുട്ടികളിൽ വായനാശീലം തുടക്കമിടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കുട്ടികൾ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആയിപ്പോകും ഏറ്റവും നല്ലത് നമ്മുടെ മാതൃഭാഷയിലുള്ള പത്രങ്ങൾ കുട്ടികളെ വായിച്ച് ശീലിപ്പിക്കുക അപ്പോൾ അവർക്ക് ഉച്ചാരണ ഉച്ചാരണത്തിലും വായിക്കാൻ മലയാള അക്ഷരങ്ങൾ വായിക്കാനുള്ള ആ ബുദ്ധിമുട്ടും ഒക്കെ ഒഴിവാക്കാൻ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കാൻ തന്നെ അവരെ ശീലിപ്പിച്ച് വിടുക നല്ല രീതിയിൽതന്നെ ഒരു വായനാശീലം ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം അത് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് അത് നമ്മൾ അതുപോലെത്തന്നെ ചെയ്യുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വായനാശീലത്തെ കുറിച്ചും മറ്റു ഭാഷകളിലെ പത്രവുമായും മറ്റ് ഭാഷകളിൽ പത്രം വായിക്കുന്നത് ആ ഭാഷയെ കുറിച്ച് ഒരു പരിജ്ഞാനം ഉണ്ടാകാൻ മുതിർന്നവർക്ക് ആണെങ്കിലും കുട്ടികൾക്ക് ആണെങ്കിലും ഏറ്റവും നല്ലതാണ് അതിന് നമ്മൾ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധകൊടുക്കണം കാരണം പല ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പം അവർ മറ്റ് ഭാഷകളിലൊക്കെ കൊസ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു പത്രത്തിലോടെ ഒക്കെ നമുക്ക് വ്യാകരണം ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും അതിനുള്ള സാഹചര്യം ഉണ്ടാകും